ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈയിടെയായിട്ട് പള്ളീലൊന്നും കാണാനില്ലല്ലോ എന്ത് പറ്റി ആ എന്തേ ഇപ്പോൾ വന്നതെന്താണ്

എന്നത്തേക്കാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ അത് നിങ്ങൾക്കറിയാന്നതല്ലേ ഇതെല്ലാം നാട്ടുനടപ്പല്ലേ ചെറുക്കൻ എവിടുന്നാണ് ആ കൊല്ലം കൊല്ലം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് അവിടെവിടെയാണ് മയ്യനാട് മയ്യനാട് അപ്പോൾ എങ്ങനെ ചെറുക്കന് ജോലിയുള്ളതാണോ ജോലി ഒക്കെ ഉള്ളത് ഗൾഫിലാണ് നല്ല വരുമാനമൊക്കെയുള്ള ആളാണോ എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും അവർ ചോദിച്ചതാണോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ടോ അതോ പിന്നെ നിങ്ങൾക്കറിയാല്ലോ സ്ത്രീധനം കൊടുക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അവർക്ക് ജീവിക്കാനുള്ളത് അവർ കണ്ടെത്തുവല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളെ കണ്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ പാവപ്പെട്ടവരാണെങ്കിലും അവർ കടം വാങ്ങിച്ചിട്ടായാലും അവരിങ്ങനെയൊക്കെ ചെയ്യില്ലേ അല്ല എന്തൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ ഇഷ്ടവാണ് ഇത് നിങ്ങളുടെ കുറ്റം പറയുന്നതല്ല ഇതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവാണ് എന്നിരുന്നാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കുക പിന്നെ അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെ കല്ല്യാണം അതായത് ഇത് വലിയ ആഡംബര പൂർണ്ണമായിട്ട് ചെയ്യാനാണോ അതായത് നാട്ടുകാരെല്ലാരെയും വിളിച്ച് ചെയ്യാനാണോ നിങ്ങൾ ബന്ധുക്കൾ മാത്രം

ഓ ഇങ്ങനെ കല്ല്യാണം ചെയ്യുന്ന നടത്തുന്നതിൻ്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ആ പുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ

അപ്പോൾ ആ അറിയാല്ലോ കല്ല്യാണത്തിന് മുമ്പായിട്ടവർക്ക് കല്ല്യാണ ക്ലാസിനൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പതിനായിട്ട് അതിന് മുന്നോടിയായിട്ട് ഒന്ന് വികാരി അച്ഛനെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി അവരടുത്തൊന്ന് പറയണം ഇപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടി വന്ന് കഴിഞ്ഞാൽ അവർക്ക് കൃത്യം ആയിട്ടുള്ള ക്ലാസെല്ലാം കൊടുത്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കാം ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് അന്വേഷിക്കോ അല്ലെങ്കിൽ വികാരി അച്ഛനില്ലെങ്കിൽ ആ പള്ളീലുള്ളാരെങ്കിലും ഇത് ബന്ധപ്പെട്ട ആൾക്കാരായിട്ടൊന്ന് ചർച്ച ചെയ്താലും മതിയാവും ഓക്കേ സുഖമായിരിക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ